ജലക്ഷാമം ഉണ്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായും ഞാന് പ്രതിക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് കൈകാര്യം ചെയ്യാൻ അത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ പ്രദേശത്ത് ഒക്കെ പല സ്ഥലത്തും ജലക്ഷാമം ഉണ്ടാകാതെ ഇരിക്കാൻ നടപടികൾ എന്തൊക്കെയാണ് സ്വികരിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യം തന്നെ നമ്മള് വീട്ടിലെ വെള്ളം ഉപയോഗിക്കല് വളരെ അതായത് നമുക്ക് ആവശ്യം ഉള്ളത് മാത്രം ഉപയോഗിക്കുക ചില വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് അലക്കാനും പത്രം കഴുകാനും എല്ലാത്തിനും ഒരുപാട് വെള്ളം ചിലവാക്കുന്ന വീടുകൾ ഉണ്ട് അതായത് വണ്ടി കഴുകിയിട്ട് ഒരുപാട് വെള്ളം ചിലവാക്കുന്നുണ്ട് വീടുകൾ ഉണ്ട് പക്ഷേ അവര് ഇത് ഉപയോഗിക്കുന്ന അതായത് ഇത് ഒക്കെ അനാവശ്യം ആയിട്ട് ഉപയോഗിച്ച് ചിലവാക്കുമ്പോൾ അവര് ചിന്തിക്കുന്നില്ല ഇത് വലിയ പ്രശ്നമാകുമെന്ന കാര്യം അവര് ചിന്തിക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അതായത് എന്ന് വെച്ചാൽ നമുക്ക് വെള്ളമില്ലാതെ നമ്മള് അതായത് ചോറ് വയ്ക്കാൻ പറ്റില്ല കറി വയ്ക്കാൻ പറ്റില്ല ഇപ്പം ഒരു കാര്യവും നമുക്ക് നടക്കുകയില്ല അപ്പം അത് ഒന്നും അവര് ഇന്നും നമുക്ക് ചിന്തിക്കില്ല പിന്നെ നമ്മളാ വീട്ടില് ഇങ്ങനെ മരങ്ങൾ ഒന്നും വെട്ടി മുറിക്കാതെ ഇരിക്കുക പിന്നെ മല കുന്ന് അങ്ങനെ ഉള്ളത് ഒന്നും ഇടിച്ച് നിരത്താതെ ഇരിക്ക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അതായത് അത് വളരെ ഒരു ഉപകാരം ആയിട്ട് മാറും അതായത് നമ്മക്ക് ജലക്ഷാമം കുറക്കാൻ പറ്റും